ഇപ്പം ഇന്ത്യൻ സിനിമകളിൽ പണ്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് എൻ്റെ ഓർമ്മകളിൽ എനിക്കില്ല ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൽ താത്പര്യമില്ല പക്ഷേ ഇപ്പോഴത്തെ സിനിമകളിൽ ആണെങ്കിൽ ഞാൻ ഇടി പടങ്ങളാണ് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെ കാണാന് ഇപ്പം ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ നടന്മാരെ എല്ലാവരെ മീൻസ് കേരളത്തിലുള്ള നടന്മാർ അല്ലാണ്ട് പുറത്തുള്ള നടന്മാരെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ ഇപ്പം എന്താ പറയുക അവരെ കാണുമ്പോൾ ആയിക്കോട്ടെ അവരോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ നല്ല മാറ്റങ്ങളുണ്ട് നമ്മളിപ്പം നമ്മുടെ എന്താ പറയുക സീരിയലിൽ ആയിക്കോട്ടെ ഇപ്പം നമ്മൾ സീരിയലിനെക്കാളും നമ്മൾ കൂടുതലായിട്ടും സിനിമയാണ് കാണാറ് ഇപ്പം പ്രിയപ്പെട്ട നടൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ ആണെങ്കിൽ എനിക്ക് സൂര്യനെയും വിജയിനെയൊക്കെയാണ് ഇഷ്ടം അതുപോലെ മലയാളത്തിൽ ആണെങ്കിൽ നടിമാരെ വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ലെങ്കിലും ഇപ്പം മലയാളത്തിലാണെങ്കിൽ നമ്മുടെ മമ്മൂക്ക അതുപോലെ തന്നെ ലാലേട്ടൻ അതുപോലെ തന്നെ അപ്പം എനിക്ക് എന്താ പറയുക അനു സിത്താരയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അനു സിത്താര അതുപോലെ തന്നെ കെ എസ് ചിത്ര ഇവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ മാത്രമല്ല നമ്മൾ ചിലർ മൂളുമ്പം ഇവരുടെ അടുത്ത് എത്തിയില്ലെങ്കിൽ പോലും എന്താ പറയുക ഒരുപാട് ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ ആയിക്കോട്ടെ അതുപോലെ സിനിമ കാണാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്